ഇന്ത്യയിലെ ഗതാഗത സംവിധാനം വളരെ മോശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന രീതിയില് എനിക്ക് പറയാണെങ്കിൽ വളരെ മോശാണ് റോഡുകൾ ഭയങ്കര മോശാണ് ആക്സിഡന്റുകള് ഉണ്ടാകുന്ന സ്ഥലങ്ങള് ഭയങ്കര മോശമാണ് അങ്ങനെ നമ്മള് പിന്നെ ദുബായി പിന്നെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ കാനഡ അവിടെയുള്ള റോഡുകള് നമ്മുടെ റോഡും വച്ച് നോക്കി നോക്ക് ഈ കൊള്ള കാശ് വാങ്ങി അവര് മുഴുവൻ നശിപ്പിച്ചിടുവാ അവർക്ക് നല്ല വൃത്തിക്ക് ഉണ്ടാക്കി കൂടെ എ കുറച്ച് സ്ഥലം നാട്ടുകാരുടെ അടുത്ത്ന്ന് വാങ്ങിച്ചായാലും അവര് എന്തിനക്കെ പൈസ മുടക്കുന്നുണ്ട് അപ്പം നല്ല റോഡ് ഉണ്ടാകണമെങ്കിൽ നന്നായിട്ട് കുറച്ച് വീതിയില് എന്തേലക്കെ ഉണ്ടാക്കുവനെങ്കില് രണ്ട് വണ്ടിക്ക് പോകാം ചില സ്ഥലത്ത് മുഴുവൻ കുണ്ടും കുഴിയാണ് പോരാനും പോവാനും പറ്റാത്ത അവസ്ഥ അപ്പം ഗതാഗത സംവിധാനം ഭയങ്കര മോശാണ് റോഡുകളുടെ അനിശ്ചിതത്വം ആണ് റോഡുകള് നന്നായാലാണ് ഗതാഗത സംവിധാനം നേരെ ആകത്തുള്ളൂ മറ്റ് പിന്നെ സ് സ്ഥലങ്ങളെ നോക്കുവാണെങ്കില് നമ്മള് രാജ്യങ്ങള് നോക്കുവാണെങ്കില് എന്ത് സുഖമായിട്ടാണ് അവർക്ക് മേലെ കൂടെ വേണമെങ്കിൽ നടക്കാ നടന്ന് പോകുന്നവർക്ക് വേ വേറെ പതയുണ്ട് വണ്ടിക്ക് പോകുന്നവർക്ക്ണ്ട് വളരെ നല്ല സംവിധാനമാണവിടെ ഇവിടെ അങ്ങനെ ആണോ ഇവിടെ ഭയങ്കര മോശമാണ്